ആദ്യമൊക്കെ സ്കൂളിലെ ചെറിയ ചെറിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവായിരുന്നു ചെറിയ ചെറിയ ആനുവൽ ഡേ ഫങ്ഷൻസിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡാൻസുകളൊക്കെ അവതരിപ്പിക്കാനും സ്കൂളില് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അതിന്നൊക്കെ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാൻസ് കണ്ടിട്ട് അങ്ങനെ ഞങ്ങള് പഠിച്ചു തുടങ്ങിയതായിരുന്നു പിന്നെ വീട്ടില് ഞാനിങ്ങനെ വീട്ടില് ഞാനിങ്ങനെ കണ്ണാടി നോക്കിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ടിട്ട് ഇവര് എൻ്റെ വീട്ടുകാര് എന്ത് ചെയ്തു ഒരു സ്കൂ ഡാൻസ് സ്കൂളിൽ കൊണ്ട് ചേർത്തു അവിടെ അവിടെ പോയപ്പഴായിരുന്നു എന്നെപ്പോലെ ഒരുപാട് കുട്ടികള് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ അവിടെ സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ഫീസ് ഒരുപാടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പഠിക്കാനല്ല പ് ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടുതന്നെ ഒരു പകുതി എത്തിയപ്പോൾ എനിക്കവിടെ നിർത്തേണ്ടി വന്നു അപ്പോൾ അപ്പം മുതല് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു എനിക്ക് ഈ ഡാൻസിലോട്ട് ഇറങ്ങിത്തിരിക്കണം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഡാൻസ് പ്രോ ഡാൻസാക്കി മാറ്റണം അതിൽ കുറെ റീസെർച് ചെയ്യണം നല്ലോണം ഡാൻസ് പഠിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് ആ സമയത്ത് നിർത്തേണ്ടി വന്നു പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളില് ഡാൻസ് പഠിക്കണം ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും വേറൊരു ടീച്ചറിൻ്റെ അടുത്ത് വേറൊരു കലാമണ്ഡലത്ത് പോയി ഞാൻ പഠിക്കാൻ പോയി അവിടെ പോയി ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എൻ്റെ അവിടെന്നാണ് ഞാൻ ശെരിക്കും ഇപ്പോൾ ഈസിയൊക്കെയായിട്ട് ഡാൻസ് വൃത്തിക്ക് പഠിച്ച് വരുന്നൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞാനിപ്പോഴും ഡാൻസ് കണ്ടിന്യു ചെയ്തു കൊണ്ടിരിക്കയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും എന്താ പറയണേ നല്ല നല്ല മൊമെൻ്റ്സ് നടക്കുന്നൊരു കാര്യമായിട്ടാണ് ഡാൻസിനെ ഞാൻ കണക്കാക്കുന്നത് നൃത്തം അന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസിനാണെങ്കിലും ഭയങ്കര കുളിർമ നൽകുന്ന കാര്യമാണ് നൃത്തം അപ്പോൾ നമ്മുടെ എനിക്കാദ്യം നമ്മുടെ വീട്ടുകാര് തന്നെയാണ് എന്നെ നൃത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കാരണം എനിക്ക് ഇനോ ഇൻബോൺ എബിലിറ്റി ഇള്ളതുകൊണ്ട് ഞാനതുകൊണ്ടങ്ങനെ സപ്പോട്ട് ചെയ്തു പോകുന്നു പക്ഷെ ഞാനൊരിക്കലും വീട്ടുകാരെന്നെ ഇങ്ങനെ നൃത്തം പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരിക്കലും നോ പറഞ്ഞിട്ടില്ല അതെന്താണെന്നെനിക്കറിയില്ല അപ്പം എനിക്കിഷ്ടമാണ് ഈ ഡാൻസ് പഠിക്കാൻ ഞാന് എൻ്റെ വീട്ടുകാരും പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും കൂടി ചേർന്നുകൊണ്ടാണ് ഞാനീ നൃത്തത്തിലിത്രയും എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്